പരിചയക്കാരോ ഞാനോ ഗെയിടല്ല എനിക്ക് പരിചയത്തിലുള്ള ആരെയും എനിക്ക് അറിയത്തുമില്ല പക്ഷെങ്കിൽ ഞാന് ഒരു ട്രക്കിങ്ങിനു ടൂറ് പോയപ്പോള് മൂന്നാറില് ടൂർ പോയപ്പോള് ട്രക്കിങ്ങിന് വേണ്ടി ഒരു ഗൈഡിനെ ഞങ്ങള്ക്ക് തരുകയുണ്ടായി ഒരു ഗയ്ഡിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് ആ ഗെയിഡിന് ആ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കും ഇപ്പോള് ടൂറിസ്റ്റുകള് കൂട്ടത്തില് വരുന്ന ആൾക്കാര് എന്ത് കൊസ്റ്റിൻ ചോദിച്ചാലും അത് പറയാനും അവ അവർക്ക് അതിനെ എക്സ്പ്ലൈൻ ചെയ്തു കൊടുക്കാനും തക്ക വിധത്തില് അവർക്ക് ആ ഒരു സ്ഥലത്തെ കുറിച്ച് അല്ലെ ആ ഒരു അവിടെ നടക്കുന്ന സംസ്കാരികവും മതപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞുകൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് വീണ്ടും ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു അത്രമാത്രം അവരെ പറഞ്ഞ് മനസിലാക്കിക്കൊടുത്ത് അവരെ നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് തൊട്ട് മനസിലാക്കിക്കൊടുത്തു കഴിഞ്ഞാല് ആ ടൂര് ആ പോകുമ്പോള് അതിമനോഹരമായിട്ട് തോന്നി ഞങ്ങളെ ആണെങ്കില് ആ ടൂറിസ്റ്റ് ട്രക്കിങ്ങിന് പോന്നവരുടെ ഫോറസ്റ്റില് അവിടെ ഒരു വലിയ കാള ഉണ്ട് എന്ന് പറഞ്ഞ അവിടെയാണ് വന്യ മൃഗങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു എന്താണ് അതിന് പറയുന്നെ നമ്മളെ ഈ കാണാന് ആ ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിൽ അവിടെ പോയിക്കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളെയൊക്കെ കാണാം എന്നുള്ള ഒരു ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടു കൂടിയാണ് കൊണ്ടുപോയത് പക്ഷെയെങ്കില് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മാനിനെ പോലും കാണാന് പറ്റിയില്ല പക്ഷെയെങ്കിൽ ആ പുള്ളി ഇവിടുന്ന് കൊണ്ടുപോയപ്പോള് തന്നെ എല്ലാം അവിടെ ചെന്നുകഴിയുമ്പോള് അവിടെ പക്ഷെ കാവ് വനത്തിൻ്റെ ഇത് ഉള്ളില് ചെന്നുകഴിയുമ്പോള് അതിൻ്റെ മുകളിലൊരു പോസ്റ്റുണ്ട് വലിയ ഏറുമാടം പോലെ ഒരെണ്ണം ഉണ്ട് അവിടെ കയറിയിരുന്ന് കഴിഞ്ഞാല് നമുക്ക് മൃഗങ്ങളെ എല്ലാം കാണാം എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മള് ഇവിടുന്ന് പോകുന്നിടംതൊട്ട് അവിടം വരെ എത്തുന്നിടം വരെ നമുക്കിപ്പോള് കാണാം കാണാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയെ പക്ഷെ അവിടെ ചെന്നപ്പോള് നമ്മള് കണ്ടില്ല പക്ഷെ പോകുന്ന വഴികൾ എല്ലാം അതിമനോഹരം ആയിരുന്നു എന്നാലും എനിക്ക് ആ ഗെയിഡിനെ ഒന്നും പറയാനില്ല അപ്പോള് മൃഗങ്ങള് വന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോകാനുള്ള കഴിവുള്ള ആളായിരിക്കണം